ഹലോ എടീ ഞാനില്ലേ ഇന്നലെ ഇല്ലേ മറ്റേ പ്രസ്റ്റീജിൻ്റെ ഒരു ഗ്യാസ് സ്റ്റവ് വാങ്ങിയേ അപ്പോൾ എനിക്ക് എന്താ പറയുക എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു അതാ ഞാൻ നിന്നെ വിളിച്ച് പറയാൻ തന്നെ കാരണം നിൻ്റെ ഏതോ നിൻ്റെ ഗ്യാസ് സ്റ്റവിന് എന്തോ കംപ്ലയിൻ്റുണ്ട് അപ്പോൾ നിനക്ക് ഒരെണ്ണം പുതിയത് വാങ്ങണം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ എനിക്ക് തോന്നുന്നു ഇത് വാങ്ങിയാൽ കുറച്ചും കൂടി നിനക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു കേട്ടോ കാരണം നിനക്ക് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ചോറും കറിയും വെക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെള്ളം വേണമെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും മൂന്ന് ബർണറുണ്ട് ഇതിനകത്ത് അതെ മൂന്ന് ബർണർ വരുന്നുണ്ട് അത് പോലെ തന്നെ അധികം വിലയും ആകുന്നില്ല എനിക്ക് എണ്ണായിരം രൂപയിലാണ് ഇത് കിട്ടിയത് ഓഫറിലുണ്ട് ആ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിനക്കത് കിട്ടുമായിരിക്കും ഓഫറിൽ കിട്ടുമായിരിക്കും പിന്നെ രണ്ട് വർഷം വാറൻറ്റി വരുന്നുണ്ട് സ്റ്റവിന് പിന്നെ അതിൻ്റെ ഗ്ലാസിന് അഞ്ച് വർഷം വാറൻറ്റി വരുന്നുണ്ട് മൊ ഞാൻ അത് യൂസ് ഇന്നലെ മറ്റേ വാങ്ങിയിട്ട് രാത്രി യൂസ് ചെയ്തു നോക്കിയായിരുന്നെ എന്നിട്ട് കറി ചെറുതായിട്ട് ഒന്ന് മറിഞ്ഞായിരുന്നു അതിൻ്റെ മേലേക്ക് മറ്റേ ഗ്യാസ് സ്റ്റവിൻ്റെ മേലെ കൂടെ കറി മറിഞ്ഞായിരുന്നു ഞാൻ എടുത്ത് മാറ്റുമ്പോൾ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും നല്ല ഷൈനിങ്ങുണ്ടായിരുന്നു എന്താ പറയുക നല്ലൊരു തിളക്കം തന്നെ ഉണ്ടായിരുന്നു അതിന് എനിക്ക് തോന്നുന്നു നല്ല വൃത്തിയും നന്നായിട്ട് വൃത്തിയാകാൻ പറ്റുന്ന ഒരു ഗ്യാസ് സ്റ്റവാണ് അതുപോലെ തന്നെ അതിൻ്റെ ഗ്യാസ് ആണെങ്കിലും അധികം ലീക്കായിട്ട് പോകുന്നില്ല നല്ലൊരു എന്താ പറയുക അതിൻ്റെ തീ വരുന്നതാണെങ്കിലും കുറച്ച് നല്ല അതിന് നമ്മുടെ ഏതോ ഒരു ആ ഒരു ബർണർ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ നിനക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എനിക്ക് തോന്നുന്നു നീ അത് വാങ്ങുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും